ഞാൻ പണ്ടത്തെ ആൾക്കാർ ഫുള്ളും മുഴുവൻ ആൾക്കാരും നെല്ല് ഞാറ് പറ നിറ പറിക്കുമ്പോഴും നെല്ല് പാറ്റുമ്പോഴും നെല്ല് വിതയ്ക്കുമ്പോഴൊക്കെ പാട്ട് പാടിക്കൊണ്ടാണ് ചെയ്യുക പണ്ടത്തെ പാട്ടുണ്ട് അതിൻ്റെ ഓർമ്മകിട്ടുന്നില്ല ആ പാട്ടൊക്കെ പാടും അതേപോലെതന്നെ നമ്മൾ ഈ വണ്ടി കഴുകുമ്പോഴും അടുക്കളയിൽ പണി എടക്കുമ്പോഴൊക്കെ പാട്ട് പാടിക്കൊണ്ടാണ് മൂളിപ്പാട്ടും അങ്ങനെ ഓരോ പാട്ടുകൾ പാടിക്കൊണ്ടാണ് ചെയ്യാറ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെന്നെ നിലം തുടച്ചുവാരുമ്പോഴും ഓരോ പാട്ട് വെറുതെ ഇരുന്ന് ബോറോക്കെ അടിക്കുമ്പോൾ നമ്മൾ വെറുതെ ഒരു മൂളിപ്പാട്ടൊക്കെ പാടും ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ഒറ്റയ്ക്കാകുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ മൂളിപ്പാട്ടും അങ്ങനെയൊക്കെ പാടും അതേപോലെതന്നെ നമ്മൾ നിലം തുടക്കുമ്പോഴും ചെറുതായിട്ട് പാട്ടൊക്കെ പാടി അതാണ് ഹോബി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപെട്ട ഹോബി എന്നു വച്ചാൽ എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പാട്ടു പാടലും അതൊക്കെ ചെയ്യണം ജോലി തുടങ്ങുമ്പോൾ ചെറുതായിട്ടൊരു മൂളിപ്പാട്ടും അങ്ങനെയൊക്കെ ചെയ്തുകഴിഞ്ഞാൽ എനിക്കൊരു ഹോബി ആണ് ഒരിഷ്ടമാണ് ഇപ്പോൾ ജോലീൻ്റെ കൂടെ ഒരു പാട്ട് ഒരു ഹോബി അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ചെയ്യാറ് അതുപോലെ വണ്ടി കഴുകുമ്പോൾ പാട്ട് പാടും അങ്ങനെയൊക്കെ ആണ് ചെയ്യാറ് എന്നു ഞാൻ പറയുന്നു അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്